ഞാൻ ഒരു വലിയ ആൾക്കൂട്ടം കാ ആൾക്കാർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഞാൻ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാരണമെന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാലൊരു ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരാൾക്ക് തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തതരമായിരിക്കും കാരണം നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞിട്ട് അതിന് ചീത്ത ഒരു അഭിപ്രായം കിട്ടുകയെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് നമ്മൾ സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ ചിലപ്പം നല്ലതാണെന്നോ ചീത്തയാണെന്നോ ചിലപ്പം പറഞ്ഞേക്കാം നല്ലതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ല സന്തോഷും ചീത്തയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊടുക്കുമ്പോൾ അതിൽ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയായിരുന്നു കാരണമെന്താ വെച്ച്കഴിഞ്ഞാൽ അവ അവർ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണെമെന്നും ആഗ്രഹം ഉണ്ട് പക്ഷെ അവർ എങ്ങനെ എടുക്കുമെന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിലുള്ള ഭക്ഷണം ആണെന്ന് എല്ലാവരും പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷും എല്ലാം ഉണ്ടായിരുന്നു